ഹലോ മാം ഇത് സെൻറ് ജോൺ സ്കൂൾ അല്ലേ ഓക്കെ മാം മാം ഞാൻ അവിടെ എയിറ്റ് ബിയിൽ പഠിക്കുന്ന സന്ദീപിൻ്റെ അമ്മയാണേ ഓക്കെ മാം ഞങ്ങൾ ഒരു ഫാമിലി ടൂർ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ കുട്ടിക്ക് ഒരു നാല് ദിവസത്തെ ലീവ് വേണമായിരുന്നു അപ്പോൾ അതിൻ്റെ പ്രോസീജിയേർസ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് എച്ച് എമ്മിനെ കോൺടാക്റ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിരുന്നു ആ അതെ അതെ അടുത്ത ആഴ്ച അട് ആ അടുത്ത ആഴ്ച നാല് ദിവസം ആദ്യത്തെ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം നാല് ദിവസമാണ് കണ്ടിന്യൂസ് അവധി വേണ്ടത്

ആ അല്ല അത് കുഴപ്പമില്ല അവൻ എല്ലാം പോർഷൻസ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട് പഠിപ്പിച്ചിരിക്കുന്നത് എല്ലാം ഇതുവരെ ഉള്ളത് കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി റീ റീ ടെസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് വരുന്നതെന്ന് പറഞ്ഞിരുന്നു അത് കുഴപ്പമില്ല ഞങ്ങൾ ശ്രദ്ധിച്ചോളാം മാം ഓക്കെ ആ ഓക്കെ ഉം ഓക്കെ മാം എന്തായാലും എന്തായാലും ക്ലാസ് ടീച്ചറിനെ ഓക്കെ മാം അപ്പോൾ എന്തായാലും ആ ഓക്കെ താങ്ക് യു മാം താങ്ക് യു മാം